ഹല്ലോ ഇത് തൃശ്ശൂറ് കുറുക്കഞ്ചേരിയിലുള്ള ഫാത്തിമ ഹോട്ടലല്ലേ ഞങ്ങൾ ഇന്നു രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുന്നൂറു ചിക്കൻ ബിരിയണിന്റെ ഓർഡർ തന്നിട്ട് അതേ അതേ സ്കൂളിൽ നിന്നാണ് വിളിച്ചത് ഞങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ആ മുന്നൂർ ഓർഡറിൽ നിന്ന് ഞങ്ങൾക്ക് അതൊന്ന് ഒരു ഇരുന്നുറ്റി അൻപത് ആക്കിത്തരാൻ പറ്റുമോ എന്താന്നുവെച്ചാൽ അന്നത്തെ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞുപോയി അപ്പോൾ നമ്മൾ വേടിച്ചിട്ട് വേസ്റ്റ് ചെയ്യാനേകാട്ടിം നല്ലത് ഓർഡർ മാറ്റുന്നതല്ലേ അപ്പോൾ അതു കൊണ്ടാണ് പറയുന്നത് അത് ഓർഡർ എന്താണ് മാറ്റി തിരുത്തുന്നതില് പ്രശ്നോണ്ടോ ഇല്ല അല്ലെ ഓക്കെ ഓക്കെ അതുപോലെതന്നെ വേറെ എന്തൊക്കെ ഐറ്റംസാണ് അവിടെ ഉള്ളത് ചിക്കൻ അല്ലാണ്ട് കുറച്ച് വെജിറ്റബിൾ വെജ്ക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണുള്ളത് മസാല ദോ മസാലദോശ എന്നൊക്കെ പറയുമ്പോൾ റെയ്റ്റ് എങ്ങനെയാണ് വരുന്നത് അൻപത് രൂപ അല്ലേ ആഹ് ഓക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ കുടെ ഈ ചിക്കൻ ബിരിയാണിയുടെ കുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മസാൽദോശെന്റെ ഓർഡർ ചിലപ്പോൾ തരും ഞങ്ങൾ അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഉറപ്പാക്കുകയാണെങ്കിൽ ഞങ്ങൾ അതുംകൂടി വിളിച്ചു പറയാം അപ്പോൾ പ്രോഗ്രാം നടത്തുന്നത് വെള്ളിയാഴ്ചയാണ് ഒരു ബുധനാഴ്ച ഞങ്ങൾ തന്നിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാകുമോ ബുധനാഴ്ച് തന്നാൽ മതിയോ ആണല്ലേ ആ ആ ഞങ്ങൽ ഈ നമ്പറിലെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റില്ലേ ആഹ് ഓക്കെ ഈ ചിക്കൻ ബിരിയാണിയിൽ ലഗോൺ ചിക്കൻ ആണോ യൂസ് ചെയ്യുന്നത് ആണോ ആ പിന്നെ എന്താന്നുവെച്ചാൽ ഇതിന്റെ കുടെ നമുക്ക് വെള്ളം കിട്ടുമോ വെള്ളം ഓരോ ബോട്ടിലായിട്ട് കൊടുക്കാൻ കിട്ടുമോ അ ഓക്കെ ഓക്കെ പിന്നെ ഇതൊരു ഞങ്ങൾക്ക് ടൈം പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ടുമണിയാണ് അപ്പോൾ ഒരു ഒരു ഒരുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഞങ്ങളുടെ സ്കൂളിൽ എത്തിച്ചു തരാൻ പറ്റുമോ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾത്തന്നെ പൈസ ടോട്ടൽ എമൗണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ പൈസ അപ്പോൾത്തന്നെ അയച്ചുതരാം ആ ഓക്കെ ആ അപ്പോൾ ഓർഡർ കൺഫോം ചെയ്തോളു മുന്നൂറിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് ആക്കിയിട്ട് കുറച്ചിട്ട് ഉണ്ട് ഓക്കെ ചിക്കൻ ബിരിയാണി ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ ശരി